നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കായിക രംഗത്ത് അല്ലെങ്കിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒന്നുകിൽ പരാജയം അല്ലെങ്കിൽ വിജയം ഉണ്ടാകും ഇപ്പ നമ്മള് വിജയിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും എന്നാൽ പരാജയപ്പെട്ടാൽ നമുക്ക് ഒരുപാട് വിഷമമായിരിക്കും എന്നാൽ നമ്മൾ ഇപ്പോൾ ഒരു പരാജയമുണ്ടായാൽ നമ്മൾ അതിലൂടെ വിഷമിക്കുകയും എന്നാൽ ആ പരാജയത്തിലൂടെ നമ്മൾ അടുത്ത വിജയം ഉണ്ടാകണം എന്ന് മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയും വേണം ഇപ്പം നമ്മൾ മനസ്സിലിപ്പോൾ ഒരു പരാജയമുണ്ടായാൽ അടുത്തതിന് എനിക്ക് പങ്കെടുക്കണം അതിലെനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു ഒരു മനസ്ഥിതി വരും അപ്പം അത് നമുക്ക് മറ്റുള്ള പ്രവർ കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും അവിടെയും നമുക്കൊരു പരാജയം വന്നാൽ പിന്നെ അടുത്തതിൽ നമുക്ക് അടുത്തതിൽ പങ്കെടുത്ത് വിജയിക്കാം എന്നുള്ളൊരു എന്നുള്ളൊരു ചിന്ത വരും അങ്ങനെ നമ്മൾ ഓരോ പരാജയത്തിലൂടെയും നമുക്ക് വിജയം കിട്ടണം എന്നുള്ളൊരു മുന്നിലേക്ക് മുന്നിലേക്ക് നമ്മൾ പൊയ്കൊണ്ട് ഓരോ പടിയും നമ്മൾ കടന്നുപോയികൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്കൊരു ആദ്യം തന്നെ പോയപാടെ പരാ നമുക്ക് വിജയമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ ഒരു ഒരു അത്യാർത്തി വരും നമ്മൾ വിജയിച്ചു ഇനി നമ്മൾ ഒരിക്കലും തോറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു പൊട്ട ചിന്ത നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ നമ്മൾ ശരിക്കും പരാജയത്തിലൂടെയാണ് വിജയത്തിലേക്കെത്താൻ സഹായിക്കുന്നത് നമ്മൾ പരാജയം തന്നെയാണ് നമ്മളെ വിജയത്തിലേക്കെത്താനും സഹായിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിയിപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ ഒരു ജോലി നമ്മുടെ ഒരു ലക്ഷ്യമാണെന്ന് കൂട്ടിക്കോ അപ്പം ആ ജോലിയിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നിക്കുകയും ഒരുപാട് പരാജയങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടും വരും അത് കിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് വരെ നമ്മൾ അത് പ്രയത്നിക്കണം അത് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം നമ്മൾക്കത് എന്തായാലും ഉറപ്പായും കിട്ടിയിരിക്കും അത് എൻ്റെ അനുഭവത്തിൽ നിന്നും തന്നെ എനിക്ക് അത് അറിയാം അതുകൊണ്ടുതന്നെ പരാജയം എന്നത് വിജയം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഘട്ടം തന്നെയാണ്